നിങ്ങളുടെ ഓൺലൈനിലെ ആറു പീസിനു ആയിരം രൂപാന്നു വന്ന ഓഫറ് കണ്ടിട്ട് നമുക്ക് നിലവിൽ മാർക്കറ്റിലെ റേറ്റ് എല്ലാം വെച്ച് നോക്കീട്ട് കോട്ടനാണ് കളറ് ഫെയ്ഡ് ആവില്ല ലാസ്റ്റിങ്ങാന്നെല്ലാം പരസ്യമെല്ലാം കണ്ടിട്ടാണ് ഞാനിതു ഓർഡറ് കൊടുത്തത് ആദ്യമേ ഈ ഐറ്റം വരുത്തിയത് വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഓഡറ് ചെയ്ത സാധനം അല്ല വന്നത് അതും അല്ല ക്വാളിറ്റിന്നു പറയുന്ന സാധനമേയില്ല ബെഡ്ഷീറ്റാണേലും അതെ പില്ലോ കവർ ആണേലും അതെ പിഞ്ചി പോകുന്ന അവസ്ഥയാണ് അതുമല്ല വന്നെന്റത് ഡാമേജും ഉണ്ട് നമ്മളിത് പറഞ്ഞ് ആദ്യമേ ഈ ഐറ്റംസ് റീപ്ലേസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഒരു തവണ നിങ്ങൾ റീപ്ലേസ് ചെയ്ത് തന്നു രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴ്ത്തേയ്ക്കും സെയിമ് അവസ്ഥ ഇത് എന്തൊരു ചീറ്റിങ്ങ് ആണ് ഇത് ക്വാളിറ്റി ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പരസ്യം ചെയ്തിട്ട് ഓൺലൈനിൽ കാണിച്ച് കാണിച്ചിട്ട് നമ്മൾ ഈ ഐറ്റ മേടിച്ച് കഴിയുമ്പോഴ്ത്തേക്കും പറയുന്ന സാധനം അല്ല ക്വാളിറ്റിന്നു പറഞ്ഞ സാധനമേ ഇല്ല നിങ്ങളിങ്ങനെ ആൾക്കാരെ ഇത് കാണിച്ച് പറ്റിച്ച് ചീറ്റു ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നേ നമ്മളിത് പൈസ കാശ് കൊടുത്തിട്ടല്ലേ ഇത് വാങ്ങിക്കുന്നത് എല്ലാവരും കഷ്ടപ്പെട്ടൊക്കെയാണ് കാശുണ്ടാക്കുന്നത് എന്നിട്ട് ഇത് അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റിന്നു പറഞ്ഞ സാധനമെങ്കിലും മെയിന്റയിൻ ചെയ്യണ്ടേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓൺലൈനിലും എല്ലാം സാധനം നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുന്നവരും ഉണ്ട് നിങ്ങളിത് പരസ്യം ചെയ്യുമ്പോഴ്ത്തേക്കും അറ്റ്ലീസ്റ്റ് അതിൻ്റെ ക്വാളിറ്റി എങ്കിലും മെയിൻറ്റയിൻ ചെയ്യാൻ നോക്കണ്ടേ ഇത് ഒന്ന് മാറി തന്ന സാധനം രണ്ടാമത് വരുത്തിയത് സെയിം അലക്കി കഴിഞ്ഞിട്ട് കളറ് ഏതാ ഏതിലെ പോയെന്നോ ഡിസൈൻ ഏതാണെന്നോ അറിയാൻ മേലാത്ത അവസ്ഥ ഇങ്ങനെ ആണോ നിങ്ങൾ ഐറ്റംസ് ഡെലിവറി ചെയ്യുന്നത് എനിക്കെന്താണേലും ഇതിൻ്റെ റീഫണ്ട് കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യും ഓൺലൈനിൽ ഓർഡർ ചെയ്തതിനും ക്യാഷ് പെ ചെയ്തതിനും ആദ്യത്തെ തവണ ക്യാൻസൽ ചെയ്തതിനും രണ്ടാമത് നിങ്ങൾ തന്നതിനും ഇതിനും എല്ലാം തെളിവുണ്ട് താനും ഞാൻ പാക്കറ്റ് വന്നു പൊട്ടിക്കുന്നത് കാര്യങ്ങളെല്ലാം വീഡീയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതു പോലെ തന്നെ അലക്കി കഴിഞ്ഞിട്ടുള്ളതും കീറി പോയതിൻ്റെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തരണം അടുത്ത തവണ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എന്നാം ഓൺലൈനില് പോസ്റ്റ് ചെയ്യും കമൻറ് ഇടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് എനിക്ക് എത്രയും പെട്ടന്ന് റിപ്ലേ തരണം ഞാനൊരു രണ്ടു ദിവസം വെയ്റ്റ് ചെയ്യും അതിനു ശേഷം എനിക്ക് റിപ്ലേ ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യും ഏത് അറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ് കാരണം ഇതുപോലെ ഒരാളല്ല ഇഷ്ടംപോലെ ആൾക്കാർ പറ്റിക്കപെടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കാര്യം അതുകൊണ്ട് എത്രയും പെട്ടന്ന് നിങ്ങൾ കാര്യങ്ങൾ റെഡി ആക്കി തരുമെന്നു പ്രതീക്ഷിക്കുന്നു